ഇന്ത്യയില് കൂടുതലാളുകൾ സന്ദര്ശിക്കുന്ന ക്ഷേത്രം ശബരിമല അയ്യപ്പ ക്ഷേത്രം അവടെ പോണൊന്ന് വെച്ചങ്കില് നാല്പത് ദിവസത്തെ വ്രതമെടുത്ത് ഇങ്ങനെ ചിട്ടകളനുസരിച്ചേ അവടെപ്പോവാൻ പറ്റുള്ളു അത് ഏറ്റവും കൂടുതലാളുകള് സന്ദർശിക്കുന്ന ഹിന്ദു സമുദായത്തിൻ്റെ ക്ഷേത്രമാണ് കറുത്ത വസ്ത്രമാണ് ധരിക്കേണ്ടത് അവടെപ്പോയി സ്വാമി അയ്യപ്പനെ ദർശിച്ച് ശബരിമല അയ്യപ്പനെ ദർശിച്ച് ആളുകള് തിരിച്ചു വരാറുണ്ട് പിന്നേ പ്രായ പരിധികളുണ്ട് അങ്ങോട്ട് പോകാന് കുട്ടികള് ചെറിയ പെൺകുട്ടികൾക്കും പോകാം പ്രായമായ സ്ത്രീകൾക്കും പോകാം അൻപതറുപത് വയസിന് ശേഷമുള്ള സ്ത്രീകൾക്ക് പോകാം അതുപോലെ ചെറിയ കുട്ടികൾക്കും പോകാം അങ്ങനെ പിന്നെ ഗുരുവായൂര് ക്ഷേത്രമുണ്ട് അവിടെ ആളുകള് സന്ദർശിക്കുന്ന അറിയപ്പെടുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പിന്നെ മുസ്ലിം സമുദായത്തിൻ്റേത് ബീമാ പള്ളി തിരുവനന്തപുരം ബീമാ പള്ളി പള്ളിയുണ്ട് അവിടെ മുസ്ലിംസുകള് കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന പള്ളിയാണ് അവടെ ദർഗകളും കാര്യങ്ങളും എല്ലാമുണ്ട് അവിടെ ആഘോഷങ്ങളും ഉണ്ടാവാറുണ്ട് ഇതൊക്കെയാണ് ഇന്ത്യയിലെ കൂടുതലാളുകൾ സന്ദർശിക്കുന്ന ക്ഷേത്രങ്ങളും പള്ളികളും അങ്ങോട്ട്ക്കല് പോവുന്നയന്നെ ചില നിബന്ധനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്